എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹമുള്ളതും കഴിക്കാൻ തോന്നുന്നതും മധുരപലഹാരങ്ങളാണ് മധുരപലഹാരങ്ങൾ ഏതുരീതിയിലുള്ളതായാലും എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ലഡു ജിലേബി പായസം ആ പിന്നെ ഹൽവ അങ്ങനെ വരുന്ന ഒട്ടനവധി മധുരപാലഹാരങ്ങൾ എനിക്ക് ഏറ്റോം ഇഷ്ടമാണ് കഴിക്കാനായിട്ട് കൂടാതെ മധുരം എന്ന വികാരോം എനിക്ക് വളരെ അധികം ഇഷ്ടമാണ് ഇതിനക്കത് എനിക്ക് ഇഷ്ടമുള്ളത് മധുരപലഹാരങ്ങളിൽ ഇഷ്ടം അല്ല എന്ന് തോന്നിയിട്ടുള്ള ഒരേ ഒരു പലഹാരമാണ് പാൽപേട അത് ഞാൻ കഴിക്കാറില്ല എനിക്ക് ഇഷ്ടവല്ല പിന്നെ വരുമ്പോൾ എല്ലാത്തരത്തിലുള്ള ബാക്കി എല്ലാത്തരത്തിലുള്ള ആഹാരങ്ങളും എനിക്ക് ഇഷ്ടമാണ് ഉപ്പ് പുളി എരിവ് എല്ലാം കൂടിച്ചേർന്ന നല്ല സദ്യ കഴിക്കാനും നോൺവെജ് കഴിക്കാനും ഏത് രീതിയിലുള്ള ഫുഡ് കഴിക്കാനും എനിക്ക് വളരെ അധികം ഇഷ്ടമാണ് ആക്ചുലി ഞാനൊരു ഫുഡിയാണ് എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അധികം അറിയില്ലെങ്കിലും കഴിക്കാൻ വളരെ അധികം ഇഷ്ടമാണ് അതും ഒരേ തരത്തിലുള്ള ഫുഡ് അല്ല വെറൈറ്റി ഫോഡുകൾ ട്രൈ ചെയ്യാനും കഴിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതിന് സാധിക്കാറില്ല